മൂന്ന് പത്ത് രണ്ടായിരത്തി ഒന്ന് ആറ് എട്ട് രണ്ടായിരത്തി രണ്ട് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി അഞ്ച് ഏഴ് എട്ട് രണ്ടായിരത്തി പതിനാല്